ട്രാവൽ ഏജൻസി അക്ബർ ട്രാവൽ ഏജൻസിയായിട്ട്

ഇടപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് എന്ന നിലക്ക് കുഴപ്പമില്ല സർവീസ് നല്ല സർവീസാണ് കാരണം ഞാനെൻ്റെ പല പ്രാവശ്യം ഇവിടുന്നു ഗൾഫിൽ പോകാൻ വേണ്ടി ടിക്കറ്റെടുത്തതും ഒക്കെ അക്ബർ ട്രാവൽസെന്നാണ് എന്നാൽ ഫാമിലീനെ കൊണ്ടു പോകാൻ വേണ്ടി ടിക്കറ്റെടുത്ത് അവർ വിസ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത് അക്ബർ ട്രാവൽസാണ് നല്ല സർവീസാണ് ടിക്കറ്റിനൊക്കെ മറ്റുള്ള ട്രാവൽസിനേക്കാളും കുറച്ച് കുറവെന്നാണെന്ന് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ടൈം ഓൺ ടൈം നമ്മൾ ഏൽപ്പിച്ച ജോലി എന്താണ് എങ്കിലത് പൂർത്തിയാക്കി ഞമ്മളെ വിളിച്ച് ഞമ്മളെ ക്കത് കൈമാറുന്ന അത്ര നല്ല പ്രശ്നമില്ലാത്ത നല്ല സർവീസ് തന്നെയാണ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കെന്താണ് എങ്കിൽ അതു ചെയ്തു തരും അതുപോലെ പേയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ മതി നമ്മളവിടെ പോകണമെന്നല്ല വാട്ട്സ്പ്പ് വഴി ഞമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വാട്ട്സപ്പുക്കയച്ചു തന്നു അത്തരത്തിലുള്ള നല്ല സർവീസുള്ള ഒരു ട്രാവൽ ഏജൻസെന്നാണ് അക്ബർ ട്രാവൽ ഏജൻസി